ഹലോ ഹലോ ആ എൻ്റെ ഷോപ്പിൽ മൂന്ന് നാല് ഐറ്റം ടീ ഉണ്ട് മസാല ചായയുണ്ട് ജിഞ്ചർ ഉണ്ട് ലെമൺ ഉണ്ട് ഹിബിസ്ക്കസ് ഉണ്ട് ഗ്രീൻ ടീ ഉണ്ട് പിന്നെ ഹെർബൽ ടീസ് ഉണ്ട് ആ മസാല ചായയ്ക്ക് മാത്രം നമ്മൾ തേർട്ടി ആണ് ബാക്കി പിന്നെ ഹെർബൽസിനും ആ പിന്നെ ബാക്കിയെല്ലാ ഇരുപത്തഞ്ച് അങ്ങനെയാണ് റേറ്റ് എല്ലാം സ്പെഷ്യൽ ആയിട്ട് നമുക്കിപ്പോൾ കൂടുതലായിട്ട് പോയിക്കോണ്ടിരിക്കുന്നത് മസാല ചായയാണ് പോയിക്കോണ്ടിരിക്കുന്നത് അത് നല്ലൊരു റിഫ്രഷിങ്ങ് ആയിട്ടുള്ള ഐറ്റം ആണത് ജിഞ്ചറും കാർഡമമും അതേപോലെ പെപ്പർ അങ്ങനെയുള്ള എല്ലാംകൂടെ ചേർത്തിട്ടുള്ള മസാല ചായയാണ് കൂടുതലായിട്ടും നമുക്ക് ട്രെൻഡിങ്ങ് ആയിട്ടുള്ളത്

സ്പെഷ്യൽ ചായ പറഞ്ഞാൽ ഹിബിസ്ക്സ് ടീ ആണുള്ളത് മറ്റേ ചെമ്പരത്തി ആ അതുണ്ട് അതാണ് പിന്നെ ഹെർബൽസ് ഉണ്ട് തുളസി പനിക്കൂർക്കയെല്ലാം അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഹെർബൽസ് അതും സ്പെഷ്യൽ ആണ് ഏറ്റവും കൂടുതൽ പോവുന്നത് ഹെർബൽസും മസാല ചായയുമാണ് നമ്മുടെ ഷോപ്പിൽ പോയിക്കോണ്ടിരിക്കുന്നത് ആ മറ്റേ ഇങ്ങനെ ഓർഡർ ചെയ്യാനുണ്ട് നേരിട്ട് വന്നെടുത്തുകൊണ്ട് പോവുവാണോ അതോ ഓൺലൈൻ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനിലും ചെയ്യുന്നുണ്ടേ ഓൺലൈൻ ആയിട്ട് ചെയ്യാനാണ് അന്നേരം നമ്മുടെ ഷോപ്പിൻ്റെ പേര് ജ്യൂസ് മാജിക് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇപ്പോൾ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടേയ്നറിനകത്ത് പാഴ്സൽ ചെയ്ത് തരും ഉം പാഴ്സൽ ചെയ്തുതരും ഇല്ല ഡെലിവറി ചാർജ് ഒന്നും ഇല്ല ആ ആ പക്കയായിട്ട് ഉള്ള നമുക്ക് അത് തുളുമ്പിയൊന്നും പോകാത്ത രീതിയിൽ നന്നായിട്ട് നീറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് തരും നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടി പിന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്യുവാണെങ്കിലും നല്ല രീതിയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോവത്തില്ല ആ ശരി ശരി ഓക്കെ ഉം